ഹൈ ഹലോ ഇത് ട്രാവൽ ഏജൻസി അല്ലേ ആ എനിക്ക് എന്താ മെയ് പത്തൊൻപത് എനിക്കൊരു യാത്ര പോകണം

എന്താ പറയുക അത് ഒരു ട്രെയിനിൻ്റെ ബുക്ക് ചെയ്യണമായിരുന്നു അത് എപ്പോഴാണ് പുറപ്പെടുന്നത് ഒന്ന് അറിയണമായിരുന്നു

ആ ആ ശരി പിന്നെ അത് നിർത്തുന്ന സ്റ്റേഷനുകൾ ഏതൊക്കെ ആണ് പിന്നെ രണ്ട് മൂന്ന് സ്റ്റേഷനലുകളിൽ ഒക്കെ നിർത്തുന്നതാണോ ഓ വന്ദേ ഭാരതാണോ വന്ദേ ഭാരത് വേണ്ട സാധാ ട്രെയിൻ മതി ഓക്കെ അതിനകത്ത് ആ എത്ര സ്റ്റോപ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ മതി

ഇപ്പോൾ ആലപ്പുഴയിലേക്കാണ് ആ ഓക്കെ അപ്പം ആലപ്പുഴയിൽ ആകുമ്പോൾ ആ ഒരു ഓ പത്ത് സ്റ്റോപ്പ് എങ്കിലും കാണും അല്ലേ

അഞ്ച് മണിക്കൂറ് ആ ഓ താങ്ക്യൂ ഓ താങ്ക്യൂ താങ്ക്യൂ ഞാൻ അറിയിക്കാം കേട്ടോ